ആ ആ ആ

ആ കിട്ടും കിട്ടും കിട്ടും എത്ര എത്ര ദിവസം നോക്കിയിട്ടാണ് ഓക്കെ

ഓ ആ ഞങ്ങൾ അളവെടുക്കും വന്നിട്ട് അവിടെ വന്നിട്ട് അളവ് എടുക്കും കുട്ടിയുടേത് ആ അതാണ് എളുപ്പം ആ അപ്പം ഞങ്ങൾ പെട്ടെന്ന് തരാം കുട്ടികൾ സ്കൂൾ ആവുമ്പോൾ സ്കൂൾ ഓപ്പൺ ആവുമ്പോഴത്തേക്ക് വേണ്ടത് അല്ലേ അപ്പോൾ പെട്ടെന്ന് തരും ഉം ഉം ആ ഞാൻ ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല പെട്ടെന്ന് തരും അപ്പം അത് അപ്പം നിങ്ങൾ ഇത് കുട്ടികളെ അത് മോഡൽ അതെല്ലാം പറഞ്ഞ് തന്നാൽ മതി കുട്ടികളെ യൂണിഫോമിൻ്റെ

ആ അതുമായിട്ടും അത് എന്നാൽ നമ്മൾ വരും കുട്ടികളെ മോഡൽ എല്ലാം കാണിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ അളവ് അളവ് എടുക്കാൻ വരും അത് കുട്ടികൾ ഉണ്ടാവും ചാർജ് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ മോഡൽ കണ്ടിട്ടാണ് ചാർജ് പറയൽ ഇപ്പം പല മോഡലും ഉണ്ടല്ലോ അപ്പം ആ മോഡൽ അനുസരിച്ചിട്ട് ഞങ്ങൾ ചാർജ് ചാർജ് പറയും ഉം അപ്പം ഏത് മോഡൽ നോക്കണം ഇപ്പം പാൻറ് ഷർട്ട് ആണോ പാവാടയോ അല്ലെ നഴ്സറി ഉടുപ്പാണോ അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ചാർജ് ചാർജ് വയ്ക്കണ്ടിയെ അത് തന്നിട്ട് എത്ര ദിവസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾ സാധനം ഇവിടെ എത്തിച്ച് കൊടുക്കും പടന്നെ കിട്ടിയേച്ച് അതുടുക്കും ഓക്കെ ഓക്കെ ഓക്കെ പെട്ടെന്ന് തരാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി